കണ്ണൂർ ജില്ലയിലെ ആളുകൾ നിത്യേന നേരിടുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ശമ്പള പ്രശ്നമാണ് ഈ നമ്മുടെ പ്രദേശത്തുള്ള ആൾക്കാറൊക്കെ തൊഴിലുറപ്പ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവർ കൊല്ലത്തിൽ നൂറ് പണി നൂറ് ദിവസത്തെ പണി എന്നാണ് അതിൻ്റെ കണക്ക് അപ്പോൾ അവർ നൂറ് ദിവസത്തെ പണി ചെയ്താലും വേറെ പണിക്ക് ഇങ്ങനെ പോകാണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ പൈസ കൃത്യമായിട്ട് കിട്ടണില്ല അതൊരു വലിയൊരു പ്രശ്നം തന്നെയാന്ന് സാധാരണക്കാർക്ക് പണിയെടുത്തിട്ട് പൈസ കിട്ടുന്നില്ലായെന്ന് പറഞ്ഞാൽ അത് നല്ല പ്രശ്നം തന്നെയാണ് അപ്പം അത് ഉണ്ട് പിന്നെ രണ്ടാമതായിട്ട് കുടിവെള്ള പ്രശ്നമാണ് മഴക്കാലം വെള്ളത്തിന് ക്ഷാമം ഒന്നൂല്ലയെങ്കിലും വേനൽക്കാലം വരുമ്പോൾ നമ്മുടെ പ്രദേശത്തെല്ലാം വെള്ളത്തിന് പ്രശ്നമുണ്ട് അപ്പം വെള്ളം വണ്ടിയിൽ വെള്ളമൊക്കെ വരുമെങ്കിലും നമ്മുടെ ജോലിക്കെല്ലാം പോകുന്ന ആൾക്കാർക്ക് അവർ ഏതെല്ലാം സമയത്തെല്ലാം വെള്ളം വരുമ്പോൾ വെള്ളം ശേഖരിക്കാൻ വേണ്ടീട്ടൊന്നും പറ്റുന്നില്ല രാവിലെ ജോലിക്ക് പൊയ്കഴിഞ്ഞാൽ വൈകുന്നേരം വരുന്ന ആ ഉച്ച സമയത്തിലാണ് വണ്ടീലും വെള്ളം വരുക അപ്പോൾ അവർക്ക് അതൊരു വലിയ പ്രശ്നമാണ് അത് എന്നാൽ പറയുക അവർ പറയുമ്പോൾ നേതാക്കന്മാരോടൊക്കെ പറയുമ്പോൾ നമ്മൾ ആ വണ്ടീം വെള്ളം വരുന്നുണ്ട് അങ്ങനെയെല്ലാമാണ് അവർ പറയുമെങ്കിലും നമ്മൾക്ക് നമ്മുടെ സമയത്ത് നമുക്ക് ജോലിക്ക് പോകാണ്ട് വെള്ളത്തിനായിട്ട് നിൽക്കാൻ വേണ്ടീട്ട് പറ്റൂല്ലല്ലോ അപ്പോൾ അത് അങ്ങനെയെല്ലാ ഉള്ള പ്രശ്നമുണ്ട്